ആ പറഞ്ഞോ ആ അതെയോ എന്തായിരുന്നു പേര് ആ ആ അ എത്ര വയസ്സായി ആ അതേല്ലേ എപ്പോഴാണു തുടങ്ങിയത് ഇന്നലെ മുതലാണല്ലേ നന്നായിട്ട് വേദനയുണ്ടോ അതേല്ലെ എന്തെങ്കിലും മെഡിസിൻ എടുത്തായിരുന്നോ അതെയോ കേടുണ്ടോ പല്ലിന് അ അ അ ആ അതേല്ലേ ആ നല്ല കേടുണ്ടെങ്കില് അത് മറ്റു പല്ലിനെ ബാധിക്കും ആ ഇതിപ്പോള് നല്ല ഇനിയിപ്പോള് ഞാനൊരു മരുന്ന് എഴുതിത്തരാം അതു കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ക്ലിനിക്കിലേക്കു വരേണ്ടിവരും ഞാന് തിങ്കൾ ചൊവ്വ വെള്ളി മാനന്തവാടി ബുക്കിയ്യേണ്ട അവിടെ അങ്ങോട്ടേക്കു വന്നാല് മതി

ഒന്ന് ചൂടു പിടിച്ചോളൂ നന്നായി ചൂടുവെള്ളമൊക്കെക്കൊണ്ട് തണുത്തത് അധികം കഴിക്കേണ്ട രണ്ടു ദിവസം കഴിച്ചുനോക്കുക എന്നിട്ട് കൂടുതലാണെങ്കില് ക്ളിനിക്കിലേക്കു വരിക

ആ ഭക്ഷണത്തിനു ശേഷം ഇപ്പോഴെന്തെങ്കിലും കഴിക്കാന് പറ്റുന്നുണ്ടോ

ആ ഓക്കെ ഓക്കെ അത് മൂന്നു നേരം കഴിക്കണം മരുന്ന് കേട്ടോ ആ ആ വെൽക്കം